കുറച്ചു ദിവസം മുൻപെ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു റെഡ്മി മൊബൈൽ ഫോൺ ഓർഡർ ചെയ്തിരുന്നു ഇന്നലെയാണ് അത് എൻ്റെ കൈയ്യിൽ കിട്ടിയത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതും ഇതേ മൊബൈൽ ഫോൺ ആണ് ഇതിൻ്റെ റാമും സ്റ്റോറേജും വളരെ കൂടുതലാണ് മാത്രമല്ല ബാറ്ററി പവറും ഉണ്ട് ഇത് എൻ്റെ ഫ്രണ്ട് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനും വാങ്ങിയത്